ഞാൻ എൻ്റെ കൃഷി ഭൂമിയിൽ വളരെ അധികം സമയം ചെലവഴിക്കാറുണ്ട് സ്പെൻ്റ് ചെയ്യാറുണ്ട് ഏല കൃഷിയാണ് എൻ്റെ പ്രധാന ഐറ്റം കൃഷിയിൽ അത് എത്ര സമയം എന്നു ചോദിച്ചാൽ അത് അതിന് ഒരു നിർവചനം ഇല്ല കാരണം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു ഏഴര തോട്ടം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു സമയം മാത്രം നമ്മൾ വേസ്റ്റ് ആകുന്നുള്ളൂ അത് കഴിച്ചിട്ട് അഞ്ച് മണി അത് ഓരോ ദിവസത്തിൻ്റെ ഓരോ പ്രാധാന്യം അനുസരിച്ചു അഞ്ച് മണി ആറ് മണി അല്ലെങ്കിൽ ആറര വരെയൊക്കെ സന്ധ്യ വരെയൊക്കെ നമ്മൾ കൃഷി ഭൂമിയിൽ ആയിരിക്കും ഇതിന് ഏലക്കൃഷി എന്നു പറയുമ്പോൾ വളരെ അധികം പരിപാലനം ആവശ്യമുള്ള ഒരു കൃഷിയാണ് എപ്പോഴും ഒരു മനുഷ്യൻ്റെ ഒരു അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ ഒരു സാമീപ്യം ഇത് ഒരു ആവശ്യം ഉള്ള ഒരു കൃഷി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതിനകത്ത് ഇറങ്ങാൻ ഇറങ്ങുന്നത് ചെടിക്ക് തന്നെ ഒരു ഉണർവ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ചെടി നല്ല ഉന്മേഷമായിട്ട് എന്നു പറഞ്ഞാൽ നമുക്ക് തന്നെ അല്ല ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ആയാലും ഒരു ചെറിയ ചെറിയ കേടുകൾ ഫംഗസ് കേടുകൾ അത് ഓരോ ചെടിക്കും ഓരോ കേടുകളും വ്യത്യസ്തങ്ങൾ ആയിരിക്കും ചിലപ്പോൾ ചിലതിനൊക്കെ ഏന്തെങ്കിലും ഇല ഇലയില്ലായിരിക്കും അത് കൂമ്പ് ഇലയിലാകട്ടെ അല്ലെങ്കിൽ അടിവശത്തുള്ള ഇലയിലാകട്ടെ അപ്പോൾ അങ്ങനെ ഇലയിലായിരിക്കും ഇതിൻ്റെ ചില കേടുകൾ പിന്നെ കൂടുതലായിട്ട് കണ്ടു വരുന്നത് അപ്പം നമ്മൾ അതിന് വളരെഅധികം സൂഷ്മമായിട്ട് നോക്കി അത് പിന്നെ പരിപാലിച്ചു അല്ലെങ്കിൽ അതിൻ്റെ കേട് കണ്ടുപിടിച്ചു എന്താണെന്ന് കണ്ടുപിടിച്ചു അതിനുള്ള പ്രതിവിധി ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ഈ കൃഷിയിടത്തിൽ നമ്മൾ സമയം ചിലവഴിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അതിന് അനുസരിച്ചുള്ള ഒരു പിന്നെ ആദായം ലാഭകരമാക്കി എടുക്കാൻ സാധിക്കും നമ്മൾ ഒരു കൃഷി എന്നു പറയുമ്പോൾ ചുമ്മാ കൊണ്ടു പോയി എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ ഏതെങ്കിലും ഒക്കെ ഒരു സമയം നമുക്ക് സമയം കിട്ടുമ്പോഴൊന്നും അതിന് ബാക്കി ചെയ്യാൻ പോയാൽ ആ കൃഷി കൊണ്ട് വലിയ ഒരു മെച്ചമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണ് രാവിലെ അവർക്ക് അവർ അവർക്ക് നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു അല്ലേ അവരെ കുളിപ്പിക്കുന്നു അവരെ പല്ല് തേപ്പിക്കുന്നു അല്ലേ അങ്ങനെ ആണ് നമ്മൾ കുഞ്ഞു കുഞ്ഞുങ്ങളെ കൊച്ചു കുട്ടികളെയൊക്കെ സംരക്ഷിക്കുക ഇന്ന് പറഞ്ഞത് പോലെ തന്നെ പരിപാലനം കൃഷിക്കും ആവശ്യമാണ് നമ്മുടെ ചെറുപ്പം തൈ നടുമ്പോൾ തൊട്ട് അതിന് ആവശ്യത്തിന് സമയം നമ്മൾ ഇപ്പം കിളക്കേണ്ട സമയത്ത് കിളച്ചു പിന്നെ മണ്ണ് ഇളക്കി മണ്ണ് ഇട്ടു കൊടുത്ത് അതിന് വേനൽ സമയങ്ങളിൽ പൊത ഇടുക എന്നു പറയും അങ്ങനെ പൊതയിട്ട് പിന്നെ നനക്കേണ്ട സമയത്ത് നന കൊടുത്ത് മരുന്ന് അടിക്കേണ്ട സമയത്ത് മരുന്ന് അടിച്ചു വെള്ളം കൊടുക്കേണ്ട സമയങ്ങളിൽ വെള്ളം കൊടുത്ത് ഇതിന് ആഹാരം നമ്മൾ മനുഷ്യൻ കഴിക്കുന്നത് പോലെ തന്നെ ആഹാരങ്ങൾ ഈ സസ്യങ്ങൾക്കും ആവശ്യമാണ് അത് പോഷകാഹാരങ്ങൾ തന്നെ നമ്മൾ ഇപ്പം ചില വീട്ടിൽ കുട്ടികൾ നമ്മൾ വളരുന്നത് കാണാമല്ലോ അത് ഇപ്പം പിന്നെ ഒരേ തരത്തിലുള്ള ഇപ്പോഴും ഒരേ ഫുഡ് കഴിച്ചു നിന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കിട്ടത്തില്ല എന്നു പറഞ്ഞതു പോലെ തന്നെയാണ് ഈ സസ്യങ്ങൾക്കും നമ്മൾ വിവിധ തരത്തിലുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷ്ണങ്ങൾ നന്നായിട്ട് നമ്മൾ കൊടുക്കുക പിന്നെ അതിനു വേണ്ട സമയങ്ങളിൽ വളം കൊടുക്കുക അപ്പം അതെപോലെ ആ കൃഷിക്ക് അതിൻ്റെ ആ പിന്നെ എന്താണ് പറയുന്നത് ചെറിയ ഇതിന് ഉണ്ടാകുന്ന ചിമ്പെന്ന് പറയും അതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരണ്ടേ പിന്നെ ഇതിനാണ് ഇതിൻ്റെ ഇലഇഎല കുഞ്ഞെന്ന് പറയും ഇലച്ചിമ്പ് എന്നൊക്കെയാണ് അതിന് പറയുന്നത് അപ്പം അത് വളരെ കരുത്തോടു കൂടി നല്ല ശക്തമായിട്ട് കയറി വന്നു പിന്നെ അതിന് നമ്മൾ പോഷകങ്ങൾ അടങ്ങിയ പിന്നെ ഇത് കൊടുത്ത് അതിനാണ് നമ്മൾ വളം ചെയ്തു കൊടുക്കുന്നെ ഇതിൻ്റെ വേര് നല്ല രീതിയിൽ കരുത്തുള്ള വേരുകൾ കിട്ടണം ആ വേരിന് ചില കേടുകളൊക്കെ ഉണ്ടാവും ഹിമാവര അല്ലെങ്കിൽ പിന്നെ ഈ ഊരൻ ഇങ്ങനെയൊക്കെയുള്ള പല കേടുകളും പലപ്പോഴും കണ്ടു വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേടുകൾ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ അതിന് എന്തെങ്കിലും മരുന്ന് ചെയ്തു ആ കേട് മാറ്റി കഴിയുമ്പോൾ നല്ല കരുത്തുള്ള വേരുകൾ അതിലൂടെ ഈ പിന്നെ വളങ്ങളും ജലങ്ങളും എല്ലാം ആകിരണം ചെയ്തു ഈ ചെടിക്ക് കൊടുക്കും അപ്പോൾ ചെടി നല്ല കരുത്തായിട്ട് നല്ല ശക്തമായിട്ട് പിന്നെ ഈ ചെടി വളർന്നു വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എത്രമാത്രം സമയം കൃഷി ഇടത്ത് ചിലവഴിക്കാൻ അങ്ങനെ ഒരു പരിധി ഇല്ല അതിന് ഏതെല്ലാം സമയങ്ങളിൽ ഏതെല്ലാം സമയങ്ങളിൽ നമ്മൾ ഇതിനെ പരിപാലിക്കാൻ നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാം പിന്നെ ഇപ്പം ആരോഗ്യകരമായ ഈ പിന്നെ കൃഷി ചെയ്യാൻ ഇപ്പം ജൈവ കൃഷികൾ ധാരളം ഉണ്ട് അതായത് നേച്ചറൽ ആയിട്ടുള്ള മരുന്നുകൾ പിന്നെ വേപ്പിൻകുരു ഉണ്ട് പിന്നെ വേപ്പെണ്ണ ഒക്കെ ഉണ്ടാക്കി ഒക്കെ കിടങ്ങളെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കിടങ്ങളുടെയൊക്കെ ശല്യം കുറയും അപ്പോൾ അത് അതിലൂടെ ഉള്ള സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാത്തില്ല നമ്മൾ ഈ വിപണിയിൽ നിന്ന് വാങ്ങുന്ന കീടനാശിനികൾ അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അത്ര മാത്രം ഇതാണെന്നൊന്നും പറയാൻ പറ്റുന്ന നമുക്ക് ആരോഗ്യകരമായ ചില ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങൾകൊക്കെ ഇടയാക്കി എന്ന സംഭവങ്ങൾ ഉണ്ട് അത് ഇപ്പോൾ ഒട്ടുമുക്കാലും സ്ഥലങ്ങളിൽ നമ്മൾ അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ആരോഗ്യകരമായ രീതിയിൽ കൃഷി ചെയ്യാനും നമുക്ക് സാധിക്കും നമ്മൾ പിന്നെ അതിന് വേണ്ടി തിരഞ്ഞെടുത്ത ജൈവകൃഷി എന്നു പറയും ജൈവം എന്നു പറഞ്ഞാൽ ചാണകം കരി ഇല ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ പൊടിച്ചുണ്ടാക്കുന്ന ജൈവ വളങ്ങൾ കൂടുതലായിട്ട് ചെയ്തു കഴിയുമ്പോൾ ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് അത് കൃഷി ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് കാരണം കൃഷി അത് സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ നമുക്ക് അതിന് യാതൊരു വിധ മടുപ്പോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ പരിപാലിക്കുന്ന പോലെ തന്നെ വളർത്തി അത് ആ രീതിയിൽ നമുക്ക്